ഫോട്ടോഗ്രാഫി എന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് എനിക്ക് ആദ്യമായിട്ട് ആൻഡ്രോയ്ഡ് ഫോണില് സ്വന്തമായിട്ട് കയ്യിൽ കിട്ടുന്ന സമയത്ത് അത് പ്ലസ് റ്റു പടിച്ചിറങ്ങുന്നൊരു സമയാണ് അതിന് മുമ്പ് തന്നെ ഞാൻ മറ്റുള്ളവരുടെ ഫോണൊക്കെ ഉപയോഗിച്ച് ഫോട്ടോകളും മറ്റുമെടുക്കാറുണ്ടായിരുന്നു അത് ആളുകളുടെ മാത്രമല്ല മുറ്റത്ത് നില്ക്കുന്ന പൂക്കളും ചിത്രശലഭങ്ങളുടെയും പക്ഷികളുടെയും മൃഗങ്ങളുടെയുമൊക്കെ എടുക്കാറുണ്ടായിരുന്നു ഈ ചിത്രങ്ങള് പോലും ഞാനെടുക്കുന്നത് കണ്ടിട്ട് അന്ന് മുതലേ മറ്റുള്ളവര് പറയാറുണ്ടായിരുന്നു ഫോട്ടോഗ്രഫിയിലെനിക്ക് നല്ല സ്കില്ലുണ്ടെന്ന് പിന്നതേപോലെതന്നെ ഫോട്ടോ എടുക്കുന്നത് മാത്രമല്ല അവ എഡിറ്റ് ചെയ്യാനും ഞാനന്ന് തൊട്ടേ പഠിച്ചിരുന്നു പിന്നെ ഫോണില് പണ്ട് തൊട്ടേ ഫോട്ടോ എടുക്കാറുള്ളതുകൊണ്ട് ആദ്യം എടുത്ത ഫോട്ടോ ഏതാണെന്ന് കൃത്യമായ്ട്ട് ഓർമ്മയില്ല എന്നാൽ ഫോട്ടോഗ്രഫിയോട് കൂടുതൽ താല്പര്യം ഉണ്ടായതുകൊണ്ട് ക്യാമറയൊക്കെ റെൻറ്റിനെടുക്കുകയും അങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കാറുണ്ടായിരുന്നു അതേപോലെ കൂടുതൽ പ്രൊഫഷണലായിട്ട് പഠിക്കാൻ വേണ്ടി ഞാൻ ഫോട്ടോഗ്രഫി എഡിറ്റിങ്ങില് പോയി ജോയിൻ ചെയ്തിരുന്നു അങ്ങനെ ആദ്യമായിട്ട് പകർത്തിയത് ഒരു മുയലിൻ്റെ ചിത്രമായിരുന്നു അതേപോലെതന്നെ ഈ പഠിക്കുന്നതിന്റെ കൂടെത്തന്നെ മോഡൽ ഫോട്ടോഗ്രാഫിയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലക്കാലത്തൊക്കെ മുയല് വളർത്തുന്നത് കൊണ്ട് മുയലിൻ്റെ ഫോട്ടോ ആയിരുന്നു ആദ്യമേ എടുത്തത് അതൊരു പത്തൊമ്പത് വയസ്സിലാണ് ഞാനാദ്യമായിട്ടെടുത്തത് അതാണെൻറ്റൊരോർമ്മ ഒരു പ്രൊഫഷണൽ ക്യാമറ വാങ്ങിക്കാനായിട്ടുള്ളൊരാഗ്രഹമുണ്ട് എപ്പഴേലും അത് സാധിച്ചെടുക്കും ഇപ്പോള് റെൻറ്റിനക്കെ ക്യാമറ എടുക്കുന്നുണ്ട് പിന്നീട് സാഹചര്യം കിട്ടുമ്പൊഴെല്ലാം ചിത്രങ്ങളെടുക്കാറുണ്ട് അങ്ങനെ ഫോട്ടോകളെടുക്കുന്നതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഭാവിയില് സാഹചര്യമുണ്ടായാൽ ഒരു ക്യാമറയൊക്കെ എടുത്ത് എൻ്റെ സ്കിൽസിനെ പുറമേകൊണ്ടുവരണമെന്നാണ് എൻറ്റൊരാഗ്രഹം അതേപോലെ ഫോണില് ചിത്രങ്ങൾ പകർത്തിയത് അങ്ങനെയൊരു സ്റ്റാട്ടപ്പ് ചെയ്തതുകൊണ്ട് ഇപ്പോള് ക്യാമറയിലെടുക്കുന്ന ഫോട്ടോയും വെച്ച് നോക്കുമ്പോള് ഭയങ്കര മാറ്റങ്ങളൊക്കെയുണ്ട് ഫോട്ടോകളെടുക്കാനുള്ള സ്കില്ലിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ആദ്യം മുതലേ ആദ്യന്തൊട്ടെടുക്കുന്നൊരു സമയം തൊട്ട് ഇപ്പോള് വരെയുള്ള ഫോട്ടോസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതുപോലെതന്നെ ഇതെൻ്റെ പാഷനായിട്ട് കൊണ്ടുപോവുകയാണ്